ഞാൻ ഫോട്ടോഗ്രാഫി ശില്പ ശാലകളിൽ പങ്കെടുത്തിട്ടില്ല പക്ഷേ ഫോട്ടോഗ്രാഫേഴ്സാ ടെക്നിക്കുകൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് അശ്വിൽ ഷാജി അവൻ ഒരു പ്രൊഫഷണൽ ക്യാറാമാൻ ആണ് അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരും അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നതും അവനാണ് എങ്ങനെയാണ് ഒരു ഫോട്ടോ ഒരു ക്യാൻഡിഡ് അല്ലെങ്കിൽ ഒരു പോർട്രൈറ്റ് ഫോട്ടോ എങ്ങനെ എടുക്കണം അവൻ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് പിന്നെ അത് മാത്രമല്ല അവൻ അവൻ്റെ പേഴ്സണൽ ക്യാമറ എനിക്ക് തന്ന് ഫോട്ടോ എങ്ങനെ എടുക്കണം എന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോ ടെക്നിക്സ് എങ്ങനെ പഠിച്ച്ണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ഞാൻ ടെക്നിക്സ് പഠിച്ചിട്ടുണ്ട് അവൻ പറഞ്ഞ് തന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് ഒരു നല്ല ഫോട്ടോ എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്